ഞാന് ഇപ്പം കുറേ കാലമായിട്ട് പൊതുവേ ഒരു പൊതു സമൂഹത്തിൽ നോക്കി കാണുമ്പോൾ മാറി നിന്ന് നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടക്കലം കൊണ്ട് അത് ഇടക്കാലമെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് ജനങ്ങളുടെ മനസ്സിൽ വല്ലാതെ വർഗ്ഗീയത എല്ലാ മത വിഭാഗങ്ങളുടെ ഇടയിലും വർഗ്ഗീയത വളർന്ന് വന്നിട്ടുണ്ട് അതിനെതിരെയായി ഒരു ലേഖനം എഴുതണമെന്ന് കുറേ കാലമായി ആലോചിച്ച് കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഇന്ത്യയിൽ മാത്രം മതം എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ നല്ലത് ചിന്തിച്ച് കൊണ്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരതിനെ ആളുകളതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഒരു പക്ഷെ നമ്മുടെ ജീവനു തന്നെ ഭീഷിണിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുവാനും സാധ്യതയുണ്ട് ഈ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മതത്തെക്കുറിച്ച് എഴുതുമ്പോഴും ഈ വർഗ്ഗീയതെക്കുറിച്ച് പ്രത്യേകിച്ച് എഴുതുന്തോറും വർഗ്ഗീയത ഒരു മനുഷ്യനും നല്ലതല്ല മനുഷ്യ കുലത്തിന് തന്നെ നല്ലതല്ല എന്നുള്ളൊരു കാര്യം അഭിപ്രായമാണ് വർഗ്ഗീയത ഒരു മനുഷ്യ കുലത്തിന് നല്ലതല്ല എന്നഭിപ്രായമാണ് എനിക്കുള്ളത് അതിനെക്കുറിച്ച് കുറേയധികം സംസാരിക്കാനുണ്ട് കുറേയധികം എഴുതണമെന്നുണ്ട് പക്ഷേ വളരെ സെൻസിറ്റീവായ വിഷയമായതിനാൽ അതിനെക്കുറിച്ച് ഞാൻപുറത്ത് അധികം സംസാരിക്കാറില്ല